ഈ ഒരു ആക്ഷേപം ട്രേഡ് യൂണിയനിസം കാർഷിക മേഖലക്കൊക്കെ ഭീഷണി ഉയർത്തുന്നു എന്നുള്ള ആക്ഷേപത്തെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവങ്ങനത്തെ കുറച്ച് ഭീഷണികൾ നമുക്ക് കാണാൻ ക കഴിയും ഈ അഗ്രികൾച്ചർ ഏ ഏരിയയിലുള്ള ഈ ട്രേഡ് യൂണിയൻ്റെ പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് നല്ല ട്രേഡ് യൂണിയൻ എന്നും നല്ല പൊളറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടാകും എന്നുള്ളൊരു കാര്യം അതുകൊണ്ടു തന്നെ അവർ ചിലപ്പം എന്താണ് അവരുടെ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിനനുസരിച്ച് വർക്ക് ചെയ്യും അവരെ എന്താണ് ഈ കർഷകരുടെ വെൽഫെയർ അവരുടെ അതിനെ ക്ഷേമമൊന്നും നോക്കാതെ ഇത് ചെയ്യും അപ്പോൾ ഒരുപാട് പ്രൊട്ടസ്റ്റുകളും ട്രേക്കുകളും വരും ഇങ്ങനെയൊരു പ്രശ്നമുണ്ട് അപ്പം രാഷ്ട്രീയമായിട്ടുള്ള അവിടെ സ്വാധീനം ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട് ഈ ട്രേഡിങ്ങ് യൂണിയൻസ് അപ്പം അത് കാർഷിക മേഖലക്ക് വലിയൊരു ഭീഷണിയാകും പിന്നെ ഇത് മുഖേന ഉണ്ടാകുന്ന തന്നെ സമരങ്ങളും അതുപോലെ തന്നെ സംവാദങ്ങളൊക്കെയെന്നുള്ളത് ഈ യൂ യൂണിയനുകൾ ഉണ്ടാക്കുന്ന ഒരുപാട് ഇ തന്നെ പ്രശ്നങ്ങളുണ്ടാകുമല്ലോ ഈ അഗ്രിക്കൾച്ചറിന് എതിരെ ഇ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് അതു പോലെ തന്നെ ഈ തന്നെ നല്ല രീതിയിൽ സ്റ്റോറേജ് സിസ്റ്റത്തെ എതിർക്കുന്ന സമയത്തൊക്കെ ഈ ട്രേഡ് യൂണിയനിസം ഈ കാർഷിക മേഘലക്കൊരു വലിയൊരു ഭീഷണിയായിട്ട് മാറുന്നുണ്ട് അതു പോലെ തന്നെ ഈ ഫാർമേഴ്സിൻ്റെ അതു തന്നെ താല്പര്യങ്ങൾക്ക് എതിരായിട്ട് അതു തന്നെ എന്തുണ്ടാകും പ്രതിനിധാനങ്ങൾ വരും ട്രേഡ് യൂണിയനിൽ അത് വലിയൊരു പ്രശ്നമാണ് ചില സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഈ ട്രേഡ് യൂണിയനുകളൊക്കെ എന്താണ് ഒരു വലിയ രീതിയിലുള്ള ലേബർ ഇൻഡസ്ട്രികൾ അവർ സംസാരിക്കും അതെന്താണ് ഈ കർഷകർ നേരെ ഉൾക്കൊള്ളാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ട്രേഡ് യൂണിയനുകൾ പറയുന്നത് ചിലപ്പം ഈ പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ തന്നെ താല്പര്യത്തിൽ തന്നെ മിസ്ഗൈഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ട്രേഡ് യൂണിയൻ വരിക എന്നുള്ളത് വഴി തിരിച്ചു വിടുന്ന രീതിയിലായിരിക്കും വരിക അതു പോലെ തന്നെ തന്നെ ഈ നവോദ്ധാനങ്ങൾക്ക് എതിരായിട്ട് ചിലപ്പോൾ ട്രേഡ് യൂണിയൻസ് ചില സമയത്ത് ഇങ്ങനെ നിൽക്കും അഥവാ അഗ്രികൾച്ചറൽ ആയിട്ടുള്ള കാർഷികപരമായിട്ടുള്ള റിഫോംസ് ഉണ്ടാകുമല്ലോ അഥവാ പുതിയ ഫാമ് ഫാം ഹൗസ് കൊണ്ടു വരിക അതു പോലെ തന്നെ ഈ തന്നെ ലോസിന് കണ്ട്രോൾ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആ റിഫോംസിനൊക്കെ ചിലപ്പോൾ ട്രേഡ് യൂണിയനെ എതിർക്കും അതൊക്കെ വലിയൊരു ചാലഞ്ചായിട്ട് മാറുന്നുണ്ട് അതു പോലെ തന്നെ ഈ അതിന് ഈ അതിന് ട്രേഡ് യൂണിയൻ അവരുടെ പ പവർ ഉപയോഗിച്ചു കൊണ്ട് ഈ ഫാമേസിനെ പൊളിറ്റിക്കലി അതിന് കണക്ട് ചെയ്യുന്നതിനെ തൊട്ട് അവർ പൊളിറ്റിക്കലി മൂവ് ചെയ്യുന്നതിന് ഇവരുടെ വലിയ തന്നെ ട്രേഡിൻ്റെ യൂണിയൻ്റെ വലിയൊരു പിടിപാട് ഉപയോഗിച്ചു കൊണ്ട് ഇവരെ എതിർക്കുന്നൊരു സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കും അതു പോലെ തന്നെ ഈ മെ മെഷീനുകൾ ഉപയോഗിക്കുന്നതിനു തൊട്ട് ഏ ഏതാണ് ഇവർ എതിർക്കുക ട്രേഡ് യൂണിയൻസ് എതിർക്കുന്ന ഒരു സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതു പോലെ തന്നെ ഈ ഒരു നവോദ്ധാനത്തിൻ്റെ തീ എതിരെ അതു തന്നെ പ്രചാരത്തിൽ വരുക ഈ ട്രേഡ് യൂണിയൻ്റെ പ്രചാരങ്ങൾ അതൊക്കെ എന്താണ് വലിയ രീതിയിൽ തന്നെ ഫാമേഴ്സിനെതിരെ അവരെ എന്താണ് റസ്റ്റില്ലാതെ വർക്ക് ചെയ്യിക്കുന്നതിലൊക്കെ ഈ ട്രേഡ് യൂണിയനിൽ ഒരു ഭീഷണി ആയിക്കൊണ്ട് കാർഷിക മേഖലക്കൊരു ഭീഷണി ആയിക്കൊണ്ട് നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും